ഹലോ ഹലോ ആരായിരുന്നു വിളിക്കുന്നത് ആ ഗുഡ് മോര്ണിംഗ് ആരായിരുന്നു വിളിക്കുന്നത് ആ റിയേടെ മമ്മിയാണോ എന്നാ ഒക്കെ ഉണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ ഉം റീനൂനും കുഞ്ഞാവക്കും ഒക്കെ സുഖം അല്ലേ ആണോ ആ ഇല്ല കുഴപ്പമില്ല സംസാരിച്ചോ ആ റിയ കുഴപ്പമില്ല നന്നായിട്ട് പഠിക്കുന്നുണ്ട് നന്നായിട്ട് അതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് പ എന്താണ് പഠിക്കാനും വര്ക്ക് ചെയ്തോണ്ടൊക്കെ വരുന്നുണ്ട് കൃത്യമായിട്ടും ഹോം വര്ക്ക്കളൊക്കെ പിന്നെ പരീക്ഷകള്ക്ക് പ്രിപ്പേ പ്രിപ്പേറ് ചെയ്ത് വരുന്നുണ്ട് എന്നാലും എന്താണ് അതിന് വര്ക്ക് ചെയ്യുന്നത് അനുസരിച്ച് പരീക്ഷയ്ക്ക് നന്നായിട്ട് പെര്ഫോം ചെയ്യാനും നല്ല മാര്ക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇപ്പം കുറച്ചും കൂടേം ശ്രദ്ധിച്ചാല് ഇനി ഇപ്പം എന്നാ ഹൈ സ്കൂളിലൊക്കെ ആയല്ലോ ഇനി പത്തിലേക്ക് ഒക്കെ അല്ലെ വരുന്നത് അപ്പം കുറച്ചും കൂടെ നന്നായിട്ട് പരിശ്രമിച്ചാല് എല്ലാത്തിനും നല്ല കൂടുതല് നല്ല മാര്ക്ക് മേടിക്കാന് പറ്റും എനിക്ക് തോന്നുന്നുണ്ട് നല്ല കഴിവുള്ള കൊച്ചാണല്ലോ കഴിവ് കുറവൊന്നും ഇല്ലല്ലോ അപ്പം ഇച്ചിരിയും കൂടെ വര്ക്ക് ചെയ്യണം കളി കളി കളി കളിക്ക് അങ്ങനെ പോകുന്നുണ്ടെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ ഇച്ചിരിയും കൂടെ നന്നായിട്ട് ചെയ്താല് നന്നായിട്ട് മാര്ക്ക് കിട്ടി കുറച്ചും കൂടെ മേടിക്കാന് പറ്റും എന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ എന്താണ് ആ ഹാ ആണോ ആ ഹാ മുന്നെ എന്നാ സ്കൂള് യൂ പ്പീലെക്കെ ആയിരുന്നപ്പം എന്തെങ്കിലും മത്സരങ്ങള്ക്ക് ഒക്കെ പോകാറുണ്ടായിരുന്നോ അവൾ ആ ഹാ ആ കലോത്സവങ്ങള്ക്കൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലേ ആ അങ്ങനെ ചെയ്യുന്നതും നല്ല കാര്യമാണ് കൊച്ചിന് താല്പ്പര്യമാണെങ്കില് നമുക്ക് എന്തെങ്കിലും പഠിപ്പിക്കാം ഏതായാലും കുഴപ്പമില്ല കൊച്ചിന്റെ ഇഷ്ടം പോലെ നമുക്കെക്സ്ട്രാ പഠനം മാത്രം അല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു കാര്യത്തിലും കൂടെ വളർന്ന് വരുന്നത് നല്ലതാണല്ലോ കുഞ്ഞുങ്ങൾ അപ്പം എന്ത് എന്തിലാണ് കു എന്തിലേക്കാണ് വരണം അങ്ങനെ വല്ലതും ഉണ്ടോ അവൾക്ക് എന്താണ് അവിടെ നന്നായിട്ട് നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാം അപ്പം പ്രസംഗത്തിനൊക്കെ നമ്മൾ നല്ല ഒരു പ്രാക്ടീസ് കൊടുത്താൽ ഈ മത്സരങ്ങള്ക്ക് ഒക്കെ കൊണ്ട് പോകാന് പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഈ മുന്നോട്ട് വരാന് വരാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത് കാരണം ആണ് പിന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത് ഇഷ്ടം ഇല്ലെങ്കില് പിന്നെ നിര്ബന്ധിച്ച് നമുക്ക് കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അപ്പം എങ്ങനെയാണ് തോന്നുന്നത് പ്രസംഗം പറയാന് കൊച്ചിന് ത കഴിവുള്ളതായിട്ട് തോന്നാറില്ലേ മമ്മിക്ക് ആ ഹാ ആ ഹാ ഹ് അപ്പം നമ്മൾ കൊച്ച് പ്രസംഗങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുത്ത് പിന്നെ അവളെയും കൊണ്ട് ആദ്യം എഴുതിപ്പിക്കാം അപ്പം അവൾക്ക് അതിനെ കുറിച്ചൊരു ഐടി ഐഡിയ കിട്ടും പിന്നത് നമ്മൾ കറക്റ്റ് ചെയ്ത് പ്രാക്ടീസും കൂടെ കൊടുത്താല് നന്നായിട്ട് കയറ്റിക്കൊണ്ട് വരാന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെ ആ ഹാ ആണോ എന്നാൽ നമുക്ക് എന്താ ഏതാ ഏതായാലും കുഴപ്പമില്ല പാട്ട് അങ്ങനെ ക്ലാസി പാടി ഞാന് കേട്ടിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാന്ന് അറിയത്തില്ല സംസാരിക്കുന്നത് നന്നായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം പ്രസംഗം പറയാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോന്ന് പെട്ടന്ന് എന്നെങ്കിലും ഒക്കെ ആശംസയൊക്കെ കുഞ്ഞിതൊക്കെ പറയാൻ ഏൽപ്പിക്കും നന്നായിട്ട് ചെയ്യാറുണ്ടായിരുന്നു പാട്ട് അങ്ങനെ ഇഷ്ട്ടമെങ്കില് നമുക്ക് അങ്ങനെ പഠിക്കാം നം ഒരു എന്താണ് പാട്ട് നമ്മൾ പുറത്തുന്ന് ഇവിടെ ഒരു ടീച്ചറ് വരുന്നുണ്ട് പാട്ട് പഠിക്കാന് താല്പ്പര്യം ഉള്ളവരെ പഠിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ അങ്ങനെയൊരു കോച്ചിങ്ങിന് വിടാം കൊച്ചിനേതായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ടെ എന്താ തോന്നുന്നത് ആ ഹാ ആ ഹാ ആ ഹാ ഹാ ആ അപ്പം അങ്ങനെ ആണേൽ കുഴപ്പമില്ല നമുക്ക് എങ്കില് രണ്ടും നോക്കാം പ്രസങ്ങവും കൊടുത്ത് നോക്കാം കൊച്ചിന് കൂടുതൽ ഇഷ്ടം ഉള്ള എന്താണോ അത് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് കൊടുക്കാം അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനേക്കാളും നല്ലതല്ലേ കൊച്ചിന്റെ ഇഷ്ടം പോലങ്ങ് പോട്ടെ അല്ലെ ആ പിന്നെ പ്രസംഗം അങ്ങനെ ആണെങ്കില് ഞാൻ സംസാരിക്കാം എന്തോ ആ നമുക്ക് എല്ലാ ബുധനാഴ്ച്ചയും വ്യാഴാഴ്ച്ചയും ഇവരുടെ ആര്ട്ടിന്റെ അവറാണ് വരുന്നത് ആ ഹാ ഒരു ടീച്ചറ് പുറത്തുന്നു വരുന്നുണ്ടെ അപ്പം ആ കൊച്ചിന് അങ്ങനെ പോകാന് താല്പ്പര്യം ആണെങ്കില് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്യാം നമുക്ക് കുഴപ്പമില്ല വേണമെങ്കില് സംസാരിക്കാം ഉം ആ എന്നാൽ അവൾ നാളെ വരുമ്പം ഞാൻ ഒന്ന് ചോദിക്കാം അവളോട് പറഞ്ഞ് വിട്ടാൽ മതി ഇങ്ങനെയൊന്ന് ആ ആ ഉവ ഉവാ പിന്നെന്താണ് സുഖമായിട്ടിരിക്കുന്നു അല്ലേ എന്നാൽ എല്ലാവര്ക്കും എന്റെ അന്വേഷണം പറഞ്ഞേരെ നാളെ വരുമ്പോൾ കാണാമല്ലോ ആ ഉം ശരി ഓക്കെ ആ